സംസ്ഥാനത്തിൻ്റെ ഗതാഗതത്തിൽ ഗതാഗതത്തിൻ്റെ നിലവാരം നല്ല ഗതിയിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് മുമ്പ് ഭയങ്കര മോശമായിരുന്നു ഭയങ്കര ട്രാഫിക്കും മറ്റേ കുണ്ടും കുഴിയും ഉള്ളതുകൊണ്ട് ഭയങ്കര മോശമായിരുന്നു ഇപ്പോൾ കുറച്ചായി റോഡുകൾ നന്നാക്കിക്കൊണ്ട് എന്നാലും റോഡിൻ്റെ ഘട ഘടന കറക്റ്റ് അല്ലാത്തതു കൊണ്ട് ഇപ്പോഴും കുറേ ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട് ഇന്ത്യയിൽ യാത്ര ചെയ്യുന്ന കാര്യത്തിൽ എക്സ്പെൻസ് ആണോ ചെലവ് തീർച്ചയായിട്ടും കുറച്ച് എക്സ്പെൻസ് തന്നെയാണ് എക്സ്പെൻസീവ് ആണ് ചിലവ് ഉണ്ട് കാരണം പെട്രോൾ ഡീസൽ അതിൻ്റെ വെ വില അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് യാത്ര ചെയ്യുന്നതിൽ ചിലവ് കൂടുതലാണോ ചിലവ് കുറച്ചു കൂടുതലാണ്